ഞാൻ ചെറിയ രീതിയിലൊക്കെ വരയ്ക്കുന്ന ഒരാളാണ് അങ്ങനെ ഒരു ദിവസം ഞാൻ ഒരു പിക്ചർ വരച്ചിരുന്നു നമ്മളുടെ കയ്യിടെ വിരൽ വിരൽ തുമ്പിൽ ഒരു പുസ്തകം ആ വിരൽ തുമ്പിലൊരു പുസ്തകം എന്ന് ഉദ്ദേശിക്കുന്നത് സ്വതന്ത്ര്യത്തെയാണ് കാണുന്ന കാഴ്ചയിൽ നമ്മളെ വിരൽത്തുമ്പിലൊരു ചിത്രശലഭത്തെ പോലെയാണത് തോന്നിക്കുക പക്ഷേങ്കിൽ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീഡം അതായത് സ്വാതന്ത്ര്യത്തോടെ നീങ്ങാൻ കഴിയുക വിദ്യാഭ്യാസം നമുക്ക് എന്ത് തരുന്നുണ്ട് സ്വാതന്ത്ര്യം തരുന്നുണ്ട് അപ്പോൾ എല്ലാവരും പഠിച്ചു മുന്നോട്ട് പോയി സ്വാതന്ത്ര്യത്തോടെ ജീവിക്കുക എന്നുള്ളതാണ് അത് അർത്ഥമാക്കുന്നത് അപ്പം നമ്മളുടെ വിരൽത്തുമ്പിലെല്ലാമുണ്ട് ഇന്നത്തെ സ്വാതന്ത്ര്യമായ ജീവിതം നമ്മളുടെ വിരൽത്തുമ്പിലുണ്ട് അത് ബുക്കിലൂടെ ആവുമ്പോൾ വളരെ നന്നായിട്ട് നമുക്ക് പിന്നെ അംഗീകരിക്കാൻ വേണ്ടി പറ്റുന്നതാണ് അതാണ് ഒരു കാര്യം ഞാൻ ഇങ്ങനെ ഒരു പിക്ചർ ആണ് വരച്ചത് അതെനിക്ക് വളരെ നന്നായിട്ട് അർഥം ഉള്ള ഒരു പിക്ചർ ആയിട്ട് എനിക്ക് തോന്നീട്ടുണ്ട് നല്ലൊരു പിക്ചർ ആണത്